ഞാനെൻ്റെ കൂട്ടുകാരീനെ വിളിച്ചിട്ടാണ് ബെഡ്ഷീറ്റ് ബുക്ക് ചെയ്തത് നല്ല ബെഡ്ഷീറ്റാണ് വലിയ ഫാമിലികോട്ട് ബെഡ്ഷീറ്റാണ് പോളിസ്റ്ററാണ് ഈ മഴക്കാലത്തെല്ലാം ഉപയോഗിക്കാൻ നല്ലതാണ് പിന്നെ കിടക്കാനും എല്ലാത്തിനും നല്ല നല്ല സുഖമായിട്ട് കിടക്കുകയും ചെയ്യാം നല്ല ഉറക്കവും കിട്ടും അതുകൊണ്ട് ഞാന് എൻ്റെ കൂട്ടുകാരീൻ്റെ ഇതിലാണ് ആ ബെഡ്ഷീറ്റ് വാങ്ങിയത് കൂട്ടുകാരി നല്ലതാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് പക്ഷേ നല്ല ഞാനത് രണ്ടു മൂന്നെണ്ണം വാങ്ങി നല്ല ബെഡ്ഷീറ്റാണ് വേനൽക്കാലത്ത് വേനൽക്കാലത്തും ഉപയോഗിക്കാം മഴക്കാലത്തും ഉപയോഗിക്കാം നല്ല സോഫ്റ്റ് പോലത്തെ നല്ല ബെഡ്ഷീറ്റാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനാ ബെഡ്ഷീറ്റ് ഓൺലൈനില് ബുക്ക് ചെയ്തു തന്ന് എൻ്റെ കൂട്ടുകാരി അങ്ങനാണ് അവള് ചെയ്തൂന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും അത് ആ ബെഡ്ഷീറ്റ് തന്നെ വാങ്ങി നല്ല ബെഡ്ഷീറ്റാണ് എനക്കിഷ്ടപ്പെട്ടു നമ്മളെ വീട്ടില് എല്ലാർക്കും തന്നെ ഇഷ്ടപ്പെട്ടു മൂന്ന് നാലാൾക്ക് വിരിച്ചു കിടക്കാൻ പറ്റിയ ബെഡ്ഷീറ്റാണ് അതുകൊണ്ടാണ് അതുതന്നെ ഇനിയും ബുക്ക് ചെയ്യണോന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പം തൽക്കാലം ആവശ്യമില്ല